എനിക്ക് ഇവിടെ നിന്ന് കൊച്ചി വരെ പോണം അപ്പം പിന്നേ റെഡി അതായത് നമ്മൾ ഓൾറെഡി നേരത്തെ പേ ചെയ്യണോ അതോ അവിടെ ചെന്നിട്ട് ചെയ്താ മതിയോ അതോ ഈ യു പി ഐ ഐഡിയോ അല്ലെങ്കിൽ ഗൂഗിൾ പേ പേടിഎം ഫോൺ പേ ഇതിലേതെങ്കിലും ഉണ്ടോ ഇൻ ഇൻ ഞാൻ ക്യാഷ് കയ്യിൽ എപ്പോഴും കരുതാറില്ല കൂടുതലും ഫോണായിരിക്കും കരുതുക അപ്പം പിന്നെ ഏ റ്റി എം ഒന്നും അടുത്ത് ഇല്ലെങ്കിൽ ക്യാഷ് എടുത്ത് തരാൻ ബുദ്ധിമുട്ടായിരിക്കുലോ അപ്പം ചേട്ടൻ്റെ കയ്യിൽ ഗുഗിൾ പേ അയച്ചാലോ അല്ലെങ്കിൽ ഫോൺ പേ അങ്ങനെ എന്തെങ്കിലും ഓൺലൈൻ ക്യാഷ് ഇടപാടുകൾ നടത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇട്ടു തരുവാണെങ്കിൽ എളുപ്പാനല്ലോ ഞാനും കൂടുതലും ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ ആണ് യൂസ് ചെയ്യുന്നത് അപ്പം അതിണ്ടെങ്കിൽ ക്യാഷ് നമ്മളിത്രേം ദൂരം ക്യാഷായിട്ട് കരുതാറില്ല അതുകൊണ്ടാണ് ചോദിച്ചത് അങ്ങനെ പണം അടയ്ക്കാം പണം നിങ്ങൾക്ക് തരാൻ പറ്റുമോന്ന് അറിയാൻ വേണ്ടീട്ട്